ആ കേൾക്കാമോ ആ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചുരിദാറ് തയ്ക്കാൻ തന്നിട്ടുണ്ടായിരുന്നു അത് വെട്ടിയായിരുന്നോ ആ എനിക്ക് കുറച്ച് ചേഞ്ചസ് വരുത്തണമായിരുന്നു അപ്പോൾ തയ്ക്കുന്നാളോട് ഒരു കുറച്ച് ഡിസൈനെന്തേലും നമുക്ക് ഫ്രണ്ടിലൊരു ആ ആലിലേടെ ഒരു ഡിസൈന് ചെയ്ത് തരാൻ പറ്റുമോ അപ്പോൾ അതിനെങ്ങനെയാണ് എനിക്കടുത്ത് തന്നെ വേണമായിരുന്നു ഒരു ഒരു മൂന്ന് മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ

ആ മതി മതി മതി മതി ആ ആ ആ അപ്പോൾ അത് ഫ്രണ്ടിൽ കുറച്ച് വേണം ഇത് നടുക്കായിട്ടൊരു ആ ഒരു വർക്കൂടെ

ആ അത് അതിന് ചേരുന്നതെന്തെങ്കിലും ആ ആ മാച്ച് കളറായിട്ടുള്ള എന്തെങ്കിലും ആ അതുകൊണ്ട് ചെയ്യാൻ അപ്പോൾ ഈ പ്ലീറ്റൊക്കെ വരുന്ന കൂടുതലാവോ ആ ആ കുഴപ്പമില്ല കുഴപ്പമില്ല ആ എന്നാൽ നമുക്കതെത്രയും പെട്ടെന്ന് ചെയ്ത് ഇത് ഓക്കെ താങ്ക് യൂ